ചെടികൾ അങ്ങനെ പ്രത്യേകിച്ച് തരത്തിലുള്ളത് മാത്രമേ വളർത്തുള്ളൂ എന്നില്ല നല്ല പൂക്കളും നല്ല ചെടികളും ഇഷ്ടമാണ് നല്ല പൂക്കൾ ഉള്ള ചെടികൾ ഇഷ്ടമാണ് റോസ് ബന്ദി ജമന്തി ബോൺവില്ല തുടങ്ങിയ ചെടികളെല്ലാം ഉണ്ട് മറ്റേ ഇലച്ചെടികൾ വള്ളിച്ചെടികൾ നിറയെ പിന്നെ ഈ മണിപ്ലാന്റ് പോലെയുള്ള ചെടികൾ ഇതെല്ലാമുണ്ട് ഇഷ്ടമാണ് വളർത്താൻ